ആ ഡോക്ടർ പനി ചുമ എല്ലാമുണ്ട് ആ മിനിങ്ങാന്ന് തുടങ്ങിയതാണ്

ആ തൊണ്ടവേദനയുണ്ടായിരുന്നു അപ്പോൾ കുറെ ചൂടുവെള്ളമൊക്കെ കുടിച്ചുനോക്കി അപ്പമൊരു സുഖമുണ്ടാകും കുറവുണ്ടാകും പക്ഷെ വീണ്ടും അതേപോലെ പിന്നെ ഉറങ്ങി എണീച്ചപ്പോൾ നല്ല പനിയുമുണ്ട് ചുമ്മയുമുണ്ട് ഏഹ് ഇല്ലയില്ല

മുന്നേ അമ്മയ്ക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് പക്ഷെ അമ്മൻ്റെയൊക്കെ അപ്പോഴേ മാറി ഒരുദിവസമേ ഇണ്ടായിരുന്നുളൂ എനിയ്ക്കിപ്പോൾ രണ്ടുദിവസമായല്ലോ ഞാനീ വീട്ടിലുള്ള പാരസെറ്റമോളൊക്കെയെടുത്തു കഴിച്ചുനോക്കി പക്ഷെ കുറവില്ല

മ് അല്ല സാധാരണ അങ്ങനെയാണ് ഒരു പാരസെറ്റാമോളെടുത്താൽ എനിക്ക് കുറവുണ്ടാവലുണ്ട് ഇത് രണ്ട് ദിവസമായി മ്മ്മ് ആ ഉണ്ട് ഇപ്പോൾ സൗണ്ടൊക്കെ പോവും ഇടയ്ക്ക് സൗണ്ടൊന്നും ഉണ്ടാവാറേയില്ല ഇല്ല വൈകുന്നേരമായാൽ മാത്രം ചിലപ്പോൾ ഒന്നുവിടും അപ്പോൾ വിചാരിക്കും കുഴപ്പമില്ല പക്ഷെ വീണ്ടും രാത്രിയൊക്കെയായാൽ അധികവാണ് അതാ ഒന്ന് കാണിക്കാൻ വന്നത് മ്മ് ആ ആ ആ അല്ലല്ല

ആ അതെ ആ ആ ആ ഓക്കേ ആ ആ ടെസ്റ്റ് ചെയ്തിട്ടുവരാം ഓക്കേ അപ്പോൾ ശരി ഡോക്ടർ ഓ ശരി